എട്ട് രണ്ട് അയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് പതിനഞ്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇരുപത്തി രണ്ട് അഞ്ച് രണ്ടായിരം പത്ത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഇരുപത്തി നാല് ഒൻപത് രണ്ടായിരത്തി പന്ത്രണ്ട്